തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ വോട്ടർ എന്ന നിലയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ അഭിപ്രായത്തിൽ ഏതാണ് കൂടുതൽ ആശ്രയിക്കാവുന്ന തിരഞ്ഞെടുപ്പ് സമ്പ്രദായം പഴയ ബാലറ്റ് പേപ്പറോ വോട്ടിംഗ് മിഷീനോ അതോ ആധുനിക ഇ വി എമ്മുകളോ എന്നു ചോദിച്ചാൽ ആധുനിക ഇ വി എമ്മുകൾ എന്നുതന്നെ പറയുവാൻ സാധിക്കും കാരണം അഴിമതിരഹിതവും അക്രമരഹിതവുമായ ഒരു വോട്ടിംഗ് സമ്പ്രദായം ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം നടക്കണമെങ്കിൽ യാന്ത്രികമായി തയ്യാറായ യന്ത്രത്തിൻ്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഇ വി എമ്മുകൾ തന്നെ വേണം പഴയ ബാലറ്റ് പേപ്പറിൽ ആർക്കു വേണമെങ്കിലും കള്ള വോട്ടുകളൊക്കെ രേഖപ്പെടുത്താം അതുപോലെതന്നെ ആ ആ ബാലറ്റ് പേപ്പറുകൾ തിരഞ്ഞെടുപ്പിനുശേഷം അല്ലെങ്കിൽ കൗണ്ടിങ്ങ് സമയത്തോ റിസൾട്ടിൻ്റെ സമയത്തോ ഒക്കെ എടുത്തുമാറ്റാം അതുപോലെ എണ്ണത്തിലൊക്കെ അക്രമങ്ങളും അഴിമതുകളും ക്രമക്കേടുകളും ഒക്കെ സംഭവിക്കാം എന്നാൽ ഏറ്റവും മോഡേണാക്കി തയ്യാറാക്കിയ ഒരു ഇ വി എമ്മിന് തൻ്റെ പ്രോഗ്രാമനുസരിച്ച് ഏറ്റവും കൃത്യമായ ഒരു റിസൾട്ട് തന്നെ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത തന്നെയല്ല ഈ വി എമ്മുകളിലെ കുറിച്ചുള്ള ചെറിയൊരു പ്രാക്ടീസും നമ്മൾ വിവിധ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ വഴി ജനങ്ങൾക്ക് നൽകുന്നതിനാൽ അത് ഏറ്റവും എളുപ്പമായ ഒരു വോട്ടിംഗ് സമ്പ്രദായം തന്നെയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും